ഹലോ അതേ ഇതാരാപ്പാ ആ അതെ അതെ സാർ അതെ

ആ ആ ഓ അതെയൊ എന്ത് ആ അതെയോ എന്ത് സാറേ പഠിക്കുന്ന കാര്യത്തിലാണോ ആ അതെയോ അത് പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല സാറേ എപ്പോഴും മൊബൈൽ തന്നെ കളി തന്നെ ഭയങ്കരമായിട്ട് ഫുള്ള് ഗെയിം കളിക്കുന്നത് ഇത് തന്നെയായി അതെയോ ആ ഇത് ഞാനില്ല സാറേ സെക്യൂരിറ്റിയാണ് ഞാൻ രാത്രി വീട്ടിലുണ്ടാവാറില്ല സെക്യൂരിറ്റിയാണ് അപ്പോൾ അമ്മയും മോനും മാത്രമേ കാണൂ അപ്പോൾ അമ്മ പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല ചൂടാവുന്നു അമ്മയോട് അതെ ആ സാർ ഒന്നു കുറച്ചു പേടിപ്പിക്കണം സാറേ കുറച്ചു ആ അതെയോ ആ ശരി സാറേ ആ അതെ സാറേ അതെയോ അത് അത് സാറേ ഇവൻ്റെ അമ്മാവൻ ഗൾഫ് നിന്നു വരുമ്പോൾ ഒരു ഫോൺ എടുത്തു കൊടുത്തതാണ് അതിപ്പോൾ അവൻ തന്നെ എടുക്കുന്നത് അമ്മക്ക് കൊടുത്തതാണ് എടുക്കുന്ന ഫുള്ള് അവൻ തന്നെ കളി അതെയോ ഇത് നമ്മൾക്ക് ഒന്ന് അറിയില്ല സാറേ ഫോണിനെ കുറിച്ചിട്ടൊന്നും വലിയ അറിവില്ല നമ്മൾക്ക് ആ അതെയോ സാറേ ആ അതെ സാറേ രണ്ടാളും ഇവിടെയാണ് സാറേ സാർ ഒന്നു സൂക്ഷിക്കണം സാറേ അവനെ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം പറഞ്ഞത് കേൾക്കുന്നില്ല ഭയങ്കര വാശിയാണ് അവന് മൊബൈലിന് ആ ആ ഓക്കേ സാറേ